നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന കരകൗശല വസ്തുവാണ് മൺപാത്ര നിർമ്മാണം അതുപോലെ പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഓല വച്ചിട്ടുള്ള ഒക്കെ ഉള്ള പലവിധ സാധനങ്ങൾ മുള വച്ചിട്ടുള്ള സാധനങ്ങൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ തടി കൊണ്ടുള്ള അതുപോലെ സിമെൻറ്റുകളിൽ ഒക്കെ ഉപയോഗിക്കുന്ന ശില്പങ്ങളൊക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് ഷോ കേസിലൊക്കെ വെയ്ക്കാൻ പറ്റിയ ചെറിയ ചെറിയ മാർബിൾ കൊണ്ടുള്ള രൂപങ്ങൾ ശില്പങ്ങൾ അങ്ങനെയുള്ള കരകൗശല വസ്തുക്കളൊക്കെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിപണിയിലുള്ളത് പിന്നെ ചിരട്ട വച്ച് ചകിരി വച്ച് അങ്ങനെ നമ്മൾ വെറുതെ കളയുന്ന ഐറ്റ സാധനങ്ങളൊക്കെ വച്ചിട്ട് കരകൗശല വസ്തുക്കളൊക്കെ ഉണ്ടാക്കി വയ്ക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഏറ്റവും കൂടുതലും പല ഓരോ സ്ഥലങ്ങളിലും അതിൻ്റെ കല കലയ്ക്ക് വ്യത്യാസമുണ്ട് അത് അവിടത്തെ ആ ഒരു മാർക്കറ്റ് അനുസരിച്ച് ആണ് അവിടുത്തെ ആ സാധനങ്ങൾക്ക് അതങ്ങനെ വ്യത്യാസം വരും നമ്മളത് അവിടെ ഉണ്ടാക്കി വച്ചാൽ തന്നെയും നമ്മൾക്കത് വിൽക്കാനുള്ള ഒരു ഇതില്ല മാർക്കറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത് അങ്ങനെ ഒരു ബിസിനെസ്സിലേക്ക് പോകുന്നില്ല പക്ഷേ നമ്മൾ ഈ ഒരു സ്ഥലത്തെ സംബന്ധിച്ച് ഇത് വിൽക്കുവാനും അതേ പോലെ വാങ്ങുവാനും ഉള്ള ആളുകൾ ഉള്ളതുകൊണ്ട് ഇവിടെ കരകൗശല വസ്തുക്കൾ കൂടുതലായിട്ട് വിൽപ്പന ചെയ്യുന്നു